വരയ്ക്കാൻ ഇഷ്ടമല്ല പിന്നെ എങ്ങനെയോ വരയ്ക്കാൻ തോന്നും ചിലപ്പോഴൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ വരകളും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നല്ലാതെ നമുക്ക് വരയ്ക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല വരയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തൊരു പിന്നെ ഫോട്ടോ കണ്ടാലും അതിനെ അന്നേരം വരച്ചു വെക്കണമെന്നൊരു ആഗ്രഹം തോന്നും അങ്ങനെയുള്ളവർ അപ്പോൾ തന്നെ നോട്ട്പാഡും പിന്നെ പെൻസൊക്കെ എടുത്ത് നമ്മൾ അന്നേരം തന്നെ ഉപയോഗിക്കാൻ വരയ്ക്കാൻ തുടങ്ങും വരച്ച് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടേ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ അടുത്ത കാര്യങ്ങൾ പോലും അവരുടെ സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ പോലും ചെയ്യത്തുള്ളു അതുപോലെ ഇൻട്രസ്റ്റുള്ള ആൾക്കാർ അതെന്തുകാര്യം കിട്ടിയാലും അത് പെട്ടന്നത് വരച്ചു വെക്കണമെന്നത് മനസ്സിൽ നിന്ന് മായുന്നതിനു മുമ്പുതന്നെ അത് വരച്ചു വെക്കണമെന്ന് ഉള്ള ആഗ്രഹം തോന്നും അതുപോലെ അത് അന്നേരം തന്നെ വരയ്ക്കുകയും ചെയ്യും